ആ ചേച്ചീ ചേച്ചി പോകാനായോ ഒരു മിനുറ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ചേച്ചി ഇപ്പോൾ കുറച്ച് നാളായല്ലോ ഇപ്പോൾ ഒര് ഒരാഴ്ച്ചയൊക്കെ ആയല്ലോ നമ്മളിവിടെ ചേച്ചീനെ ജോലിക്ക് നിർത്തിയിട്ട് ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടത് ഓർക്കുന്നുണ്ടോ ഞാനത് പ്രത്യേകം പറഞ്ഞ പ്രത്യേകം പറഞ്ഞായിരുന്നില്ലായിരുന്നോ അതായത് കല്ലുകളുള്ള സ്റ്റോൺസ് ഉള്ള തുണികൾ വേറെ ഇടണം കളർ ഇളകുന്നത് വേറെ ഇടണം വൈറ്റ് ഡ്രെസ് വേറെ ഇടണം എന്ന് ഞാൻ പറഞ്ഞത് അല്ലായിരുന്നോ ഇപ്പോൾ ഇതാ വാഷിംഗ് മെഷീനിലുള്ള എല്ലാ ഒരേപോലെ ആയി

അത് മാത്രമല്ല അതില് ആ തുണികളൊന്നും എല്ലാം കൂടി ഇത് ഒട്ടിപ്പോയി ഒരു വിധമായി ഇപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ടുള്ളത് സെപ്പറേറ്റിലേക്ക് ഇടണം എന്ന് പറഞ്ഞത് അത് സാരമില്ല അത് കുഴപ്പമൊന്നുമില്ല ഇനിത്തൊട്ട് ഒന്ന് നോക്കണേ പിന്നെ മോപ് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ മകൻ്റെ റൂമിൻ്റെ അവിടെ അല്ലേ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തത് അവിടെ വെള്ളം ഇങ്ങനെ ഇട്ടേക്കരുത് ലൈക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വെള്ളം തുടച്ചു അവൻ എന്നിട്ട് ഇന്നലെ തെന്നി വീണു കാല് രണ്ട് ഉളുക്കൊക്കെ പറ്റിയിരിക്കുകയാണെന്നാണ് പറഞ്ഞെ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഡിഷ് ഡിഷൊന്നും വാഷ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്ക് ജോലിക്ക് പോയി എക്സ്ഹോസ്റ്റെഡായിട്ട് തിരിച്ചു വരണത് കൊണ്ടാണ് ഞങ്ങൾ ചേച്ചീനെ വെച്ചത് അപ്പോൾ അതിനും വലിയ പണി തന്നാൽ എങ്ങനെയാണ് ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് വാഷിംഗ് മെഷീനിൽ ഡ്രെസ്സൊക്കെ ആകെ കിടക്കുന്നു അപ്പോഴത്തേക്ക് അവനും വീണു ചോറൊന്നും നേരേ ആയിട്ടില്ല ഡിഷും വാഷ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കേ വയ്യാതെ വരുന്നത് കൊണ്ടാണല്ലോ ചേച്ചീനെ നിർത്തിയത് ആ എനിക്ക് അറിയാം എല്ലാവർക്കും ഒരേ ജീവിതമാ യിരിക്കണം എന്നില്ലല്ലോ പക്ഷെ അത് നമ്മള് അത് കണ്ടറിഞ്ഞു ചെയ്യണ്ടേ അത് സാരമില്ല ആ എന്തായാലും അതിപ്പോൾ കുറച്ച് അല്ലേ ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു ഇതായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി അത് നാളെത്തൊട്ട് ശരിയാക്കിയാൽ മതി പിന്നെ രാവിലെ ചെയ്യേണ്ടതെന്താണെന്ന് അറിയോ രാവിലെ ആദ്യം പണി വേറെ എന്ത് തൂക്കാനോ തുടയ്ക്കാനോ അടിക്കാനോ ഒന്നും പോവണ്ട രാവിലെ തന്നെ കൊച്ചിനെ ക്ലാസിലേക്ക് ആക്കാൻ വേണ്ടി അവൻ്റെ മെയിൻ ടാസ്ക് ടിഫിൻ ഞാൻ ഉണ്ടാക്കും ടിഫിൻ പാക്ക് ചെയ്ത് അവൻ്റെ ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ സ്കൂൾ സ്കൂൾ ബസ് വരുമ്പോൾ ഒന്ന് അവിടെ വരെ കൊണ്ടു പോയാൽ മതി അവൻ പോയി കഴിഞ്ഞിട്ട് ഫ്ലോർ ക്ലീനിങ്ങോ ബാക്കി ഉള്ളതൊക്കെ നോക്കിയാൽ മതി ആ അത്രയും ചെയ്താൽ മതി പിന്നെ വൈകുന്നേരം വരുമ്പോഴുള്ള പണിയല്ലേ ആ ഡിഷും കൂടി വാഷ് ചെയ്ത് വെച്ചാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ലായിരിക്കും ആ നാളെത്തേക്ക് ഒരു പണി അത് സാരമില്ല ഒരു പണിയെന്നു വെച്ച് കഴിഞ്ഞാല് ആ ആ ലാസ്റ്റിലത്തെ റൂമില്ലേ നമ്മുടെ ആ ഡെയിനിംഗ് ഹോളിന്റെ അപ്പുറത്തുള്ള റൂം അവിടുത്തെ മാറാലയൊക്കെ അടിച്ചിടണേ ലൈക് കുറച്ച് ആൾക്കാര് വരുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് അതും കൂടി ഒന്ന് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല ഇനി നാളെത്തേക്ക് ആ ശെരി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് മനസ്സിലായിരുന്നു പുതിയ ആളായപ്പോൾ അതിൻ്റെയൊരു എക്സ്പീരിയൻസ് ഇല്ലായ്മ അതൊക്കെ ഉണ്ടാവും പിന്നെ തന്റെ കണ്ടീഷനും ഞമ്മൾക്ക് അറിയില്ലല്ലോ വീട്ടിലെങ്ങനെയാണ് ഓരോരുത്തരുടൊക്കെ ജീവിതമൊക്കെ വേറെ പോലെ അല്ലേ ശരി ആയി നാളെ ശരി ആക്കിയാൽ മതി ആ ശരി